ഇല്ല അങ്ങനെ ജലക്ഷാമം വരൾച്ച ഒന്നും ഉണ്ടായിട്ടില്ല ഇടക്ക് വേനൽക്കാലത്ത് വെള്ളം കുറച്ച് കുറവായിരിക്കും അത് നമ്മൾ മുൻസിപ്പാലിറ്റിന്ന് പൈപ്പ് വെള്ളം വരുന്നുണ്ട് അതുവെച്ച് അഡ്ജസ്റ്റ് ചെയ്യും